പാചകം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം ചെയ്യുന്ന തൊഴിലാണ് എന്നൊന്നുമില്ല അങ്ങനെ തോന്നണൊന്നുമില്ല ആണുങ്ങൾക്കും പാചകം ചെയ്യാം പെണ്ണുങ്ങളെ സഹായിക്കുകയും ചെയ്യാം പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സഹായിക്കുകയും ചെയ്യാം പണ്ടുള്ള കാലത്തൊക്കെ പാചകം ചെയ്തിരുന്നത് അന്ന് അരക്കല്ലിൽ അരച്ചിട്ടും ഉരൽ ഉലക്കയൊക്കെ ഉപയോഗിച്ച് മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ഇടിച്ചുണ്ടാക്കിയിട്ടൊക്കെയാണ് ചെയ്തിരുന്നത് ഇന്നിപ്പം അതൊന്നും അല്ല പിന്നേ എല്ലാം മില്ലിൽ പൊടിച്ച് കൊണ്ട് വന്നു അതല്ലെങ്കിൽ പൊടികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പണ്ട് ഉണ്ടാക്കിയിരുന്നത് പാചകം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ എല്ലാ ചേരുവകളും അരച്ചിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വേറെ പ്രത്യേക ഒരു രുചിയായിരുന്നു എല്ലാ പൊടികളും ചേർത്തുണ്ടാക്കുന്ന കറികൾക്കൊന്നും പണ്ടുള്ള ഞങ്ങളെ പോലത്തവർക്ക് രുചി തോന്നിക്കുന്നില്ല

എൻ്റെ വീട്ടിൽ വച്ചുണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ മരുമകളാണ് മരുമകൾക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതൊന്നും പറ്റില്ല അപ്പോൾ അവൾക്ക് അവരുടെ പിന്നേ എരിവ് പുളി ഇങ്ങനെയുള്ളതൊക്കെ അവർ അതിന് ഇഷ്ടത്തിന് അനുസരിച്ചുണ്ടാക്കും അപ്പോൾ അതൊന്നും പറ്റാത്ത രീതിയിലാണ് പണ്ട് മീൻ കറിയൊക്കെ വയ്ക്കുക ആണെങ്കിൽ നല്ല മല്ലിപ്പൊടി മുളക് പൊടി അത് പോലെ നെല്ലിക്ക ഉണക്ക നെല്ലിക്ക അരച്ചിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കറി വച്ചിരുന്നത് ഇപ്പം വെറും മുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഒന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുള്ള പാചകമാണ് അപ്പോൾ തന്നെ പഴയ കാലത്ത് ചക്ക പിന്നേ ചേമ്പും തണ്ട് പൂള അതുപോലെ തന്നെ എന്തുവാന്ന് അറുമൂസക്കായ ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് പടു പടു കറിയെന്ന് പറയും അതെല്ലാം കൂടി ചേർത്ത് കഷ്ണങ്ങളെല്ലാം വേവിച്ച് അതിൽ ഉള്ളി മുളക് കടുക് കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് വറവൊക്കെ ഇട്ടിട്ട് എടുത്ത് വച്ചാൽ അത് വേറെ പ്രത്യേക ടേസ്റ്റാണ് ഇന്ന് ഇപ്പം ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ആപ്പാടെ ചെമ്മീൻ മീൻ ബിരിയാണി അങ്ങനെയൊക്കെ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ നല്ല രീതിയിൽ ഒരു ഒന്നൂല്ല സമയം അങ്ങനെ പോവാ